ഞാന് ആദ്യമായിട്ട് പാചകം ഉണ്ടാക്കിയത് ചെറുതായിരിക്കുമ്പോൾ അതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ് എനിക്ക് പറഞ്ഞ് തന്നത് എന്ത് ഉണ്ടാക്കണം എന്ന് അത് കഴിഞ്ഞിട്ട് ഞാന് ഞാനിപ്പം കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡാണ് എനിക്കെല്ലാം പാചകങ്ങളും പറഞ്ഞ് തന്നത് പിന്നെ ഞാനിപ്പം സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ പഠിച്ചു അത് അവര് പറഞ്ഞ് തന്നത് കൊണ്ട് അവർക്കു ഇഷ്ടമായത് കൊണ്ട് ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര സന്തോഷമുണ്ട് പാചകം എങ്ങനെ ഉണ്ടാക്കണം ഞാൻ എന്ന് വച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മക്കൾക്കിഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചിക്കൻ പുലാവ് ചിക്കൻ പുലാവ് എന്ന് വച്ചാല് ആദ്യം ഗരം മസാല അതെല്ലാം ഇട്ട് പിന്നെ ഉള്ളി തീരെ ചെറിയ ഉള്ളിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉള്ളിയിട്ട് അത് കഴിഞ്ഞിട്ട് തക്കാളി പിന്നെ ഇത് ഗ്രീൻ പീസ് പിന്നെ ചെറു ചിക്കൻ എല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങൾ എല്ലാം ഇട്ടിട്ട് അരിയെല്ലാം കഴുകി വെച്ചത് അരി ബസുമതി റൈസുണ്ട് അരി കഴുകി വെച്ചത് അതെല്ലാം ഇട്ട് ഫ്രൈ ചെയ്തിട്ട് നെയ്യെല്ലാം ഒഴിച്ച് അതെല്ലാം ഇട്ടിട്ട് അങ്ങനെയാണ് ചിക്കൻ പുലാവാക്കുന്നത് അത് എല്ലാം പിന്നെ അത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി അതെല്ലാം ഇട്ടിട്ടാണ് ചിക്കൻ പുലാവാക്കുന്നത് അത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് അതാക്കാൻ അത് അങ്ങനെ ആക്കിയിട്ട് അവര് സന്തോഷത്തോടെ തിന്നുന്നത് എനിക്ക് നല്ല സന്തോഷമായ കാര്യമാണ് പാചകം അതുകൊണ്ട് എനിക്ക് പാചകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം മക്കൾക്ക് എന്തെല്ലാമോ വേറെ വേറെ ഉണ്ടാക്കി കൊടുക്കാനാണ് എനിക്ക് നല്ല താൽപ്പര്യം പിന്നെ പാ പാചകം ഞാൻ എല്ലാം ഏകദേശം എല്ലാം പാചകവും ചെയ്യും നോൺ വെജ് ചെയ്യും വെജും ചെയ്യും എല്ലാം ചെയ്യും എല്ലാവർക്കും ശരിക്ക് എന്ന് വച്ചാല് എല്ലാം വെറൈറ്റി വെറൈറ്റി പാചകമാണ് ഞാൻ ചെയ്യുന്നത് ഒന്ന് തന്നെ ഒരു ദിവസം ഉണ്ടാക്കിയാല് പിറ്റേ ദിവസം ഞാന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കില്ല അതിന് മാറ്റി മാറ്റിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പാചകം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് അബദ്ധമെല്ലാം പറ്റിയിരുന്നു കുറച്ച് ഉപ്പെല്ലാം കൂടുതലായി അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഇത് ഉപ്പായിനി ഇനി ഇത് കഴിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ഉപ്പ് കൂടുതലാണ് പിന്നെ ചിലപ്പോൾ എരിവ് കൂടുതലാണ് ഞങ്ങളുടെ എരിവല്ല എൻ്റെ ഭർത്താവിന് വേണ്ട എരിവ് വേറെയാണ് അവർക്ക് അത്ര എരിവൊന്നും വേണ്ട ഞാന് കാസർഗോഡാണെങ്കിൽ ഭർത്താവ് കണ്ണൂരാണ് അതുകൊണ്ട് അവർക്ക് എരിവ് വേണ്ട പക്ഷേ നമുക്ക് നല്ല എരിവ് വേണം അപ്പോൾ അവിടെ പോയിട്ട് ഞാനാദ്യമായിട്ട് കുക്ക് ചെയ്യുമ്പഴേക്ക് അവർക്ക് അതൊന്നും പറ്റുന്നുണ്ടായില്ല അപ്പം അവരെല്ലാം എനിക്ക് പറഞ്ഞ് തന്നു എല്ലാം കുറച്ച് കുറച്ച് അവർക്ക് അവിടെയെല്ലാം കുറെ വ്യത്യാസമുണ്ട് നമ്മളുടെ ഇതും തമ്മിലായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവർക്ക് മാറ്റവും വരുത്തുന്നത് പോലെയാണ് ഞാൻ പിന്നെ കുക്ക് ചെയ്തില്ല കുക്ക് ചെയ്തത് അതുകൊണ്ട് ഇപ്പഴും പിന്നെ ഇപ്പോൾ കണ്ണൂരിലത്തെ അതേ മോഡല് തന്നെയാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടത് ആയത് കൊണ്ട് ഇപ്പം എല്ലാവർക്കും അത് തന്നെ ശീലമായി അതുകൊണ്ട് നമ്മള് അത് തന്നെ ഞാൻ അത് തന്നെ കുക്ക് ചെയ്യുന്നു അവർക്ക് വേണ്ടുന്നത് പോലെ തന്നെ ഞാൻ കുക്ക് ചെയ്യുന്നത് പിന്നെ യു ട്യൂബില് നോക്കിയിട്ടും കുക്ക് ചെയ്യും കാരണം യു ട്യൂബില് വേറെ എന്തെല്ലാം നമ്മള് ചെയ്യാത്ത റെസിപ്പിയെല്ലാം കിട്ടിക്കഴിഞ്ഞാല് ഞാൻ അത് നോക്കി പരീക്ഷിക്കും പരീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാകില്ല അതിന് രണ്ടാമത് വീണ്ടും ട്രൈ ചെയ്യും വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാകും അങ്ങനെ ചിലപ്പം ശരിയാകില്ല ചിലപ്പം ശരിയാവും അതാണ് പക്ഷേ എന്നാലും ഞാൻ വിടില്ല ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ട് അത് ശരിയാകുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കുന്ന പോലെ ആക്കിയിട്ടു കൊടുക്കുക അത് നടക്കാണ്ട് ഇരിക്കുവൊന്നുമില്ല അത് എനിക്കിഷ്ടമാണ് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് പാചകത്തിൻറ്റെത് പിന്നെ നമുക്ക് എന്ത് എങ്ങനെ വേണേലും ചെയ്യാം നമുക്കൊരു മനസ്സ് വേണമെന്നേ ഉള്ളു പാചകം ചെയ്യാൻ അതും നമുക്ക് നമ്മളൊരു ഐഡിയസ് ചേർത്തിട്ട് വേറെ വേറെ വേറെ എന്ത് ടേസ്റ്റ് വേണേലും നമുക്കത് മാറ്റി മാറ്റിയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം തന്നെ നമ്മളൊരു ആലൂ പൊറോട്ട ആക്കുന്നത് ആലു പൊറോട്ട ആക്കുന്നതെന്ന് വെച്ചാല് ഈ ഇത് ഉരുളക്കിഴങ്ങും ഇതെല്ലാം അതിൻ്റെ അകത്തിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ആലു പൊറോട്ട ആക്കുന്നത് അതേപോലെ നമുക്ക് ചിക്കൻ പൊറോട്ട ആക്കാൻ പറ്റും ചിക്കന് നല്ല ചെറിയ എല്ലില്ലാത്ത ഇതെല്ലാം എടുത്തിട്ട് ഇറച്ചിയെല്ലാം എടുത്തിട്ട് അതാക്കിയിട്ട് പിന്നെ അതിന് അങ്ങനെ ആലു പൊറോട്ടാന്ന് പറഞ്ഞ് ചപ്പാത്തിൻ്റെ അകത്തിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കുമ്പോൾ ചിക്കൻ പൊറോട്ടയായി അതുപോലെ തന്നെ നമ്മള് നല്ല മധുരമുള്ളതാക്കാണ്ട് ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അതിട്ട് എണ്ണയിട്ട് അത് ഇങ്ങനെ മധുരമുള്ള ഒരു സാധനമായി അവൻ വേറെ വേറെ ഇങ്ങനെ നമുക്ക് കുക്കിങ്ങ് വെച്ചാൽ നമ്മൾ ഇത് എന്ത് ചെയ്യും എന്ന് ആ ചെയ്യുമ്പഴേക്കാണ് നമുക്കത് ഉണ്ട ഉണ്ടാക്കി വരുമ്പോഴാണ് ഇത് വെറൈറ്റി വരുന്നത് അതുകൊണ്ട് ഞാനത് വെറൈറ്റി വെറൈറ്റി അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് ഇത് നോക്കട്ടെ ഇത് മാറ്റി ചെയ്താലെന്ത് പറ്റും എന്നുള്ളത് അങ്ങനെ അതില് കുറച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം മാറ്റി മാറ്റിയിട്ട് എടുത്ത് വേറെ ചെയ്ത് നോക്കും അങ്ങനെ എല്ലാം വെറൈറ്റി വെറൈറ്റി തന്നെ ചെയ്യുന്നത് പിന്നെ എല്ലാത്തരത്തിലും ഉള്ളത് ഏകദേശം ഞാൻ ഉണ്ടാക്കലുണ്ട് എല്ലാവരും ഇഷ്ടപെട്ടിട്ട് കഴിക്കലുണ്ട് ആരും വേണ്ടാന്നോ മോശമായെന്നോ പറയലില്ല ചില കാര്യങ്ങള് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആകലുണ്ട് ചിലപ്പോൾ ഉപ്പ് കൂടുതലാവും പുളി അങ്ങനെ കൂടുതല് എൻ്റെ ഹസ്ബൻഡ് എന്ന് വച്ചാല് പുളി തീരെ പാടില്ല അത് പുളി കൂടിക്കഴിഞ്ഞാൽ അവരും പറയും ഓ ഇതിന് ഭയങ്കര പുളിയുണ്ട് പറയും അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യസ്തമായ ഉണ്ടാക്കലുണ്ട് എന്നാലും ഞാൻ നല്ല നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നാണ് എൻറ്റൊരു വിശ്വാസം ഞാൻ ചെയ്യലുമുണ്ട് അതുകൊണ്ട് കുക്കിങ്ങ് എന്ന് പറയുന്നത് പാചകം ചെയ്യുന്നത് ഇപ്പം ഏതെങ്കിലും ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവര് ചോദിക്കുമ്പഴത്തേക്ക് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടായിരിക്കും പറയുന്നത് ഇങ്ങനെ ചെയ്താൽ ഇപ്പം സപ്പോസ് ഇപ്പം നമ്മള് വൈറ്റെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് റാഗി ദോശ ഉണ്ടാക്കുന്നതാണ് പക്ഷേ റാഗി ദോശാന്ന് പറയുന്നത് നമ്മള് മലയാളികള് റാഗി ദോശ ഉണ്ടാക്കല് വളരെ കുറവാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു റാഗി ദോശ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കാരണമെന്ന് വെച്ചാല് റാഗിയുടെ ലേശം വെള്ളത്തില് കുതിർത്ത് വെച്ചിട്ട് അതിന്റെ ഒപ്പം ചെറുപയറും കുറച്ച് ഉലുവയും ഇട്ട് കുതിർത്ത് വെച്ചിട്ട് അരയ്ക്കാനായിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം ഇട്ട് അരച്ചിട്ട് വെള്ളമൊഴിച്ചാല് നല്ല റാഗി ദോശയാകുമെന്ന് അപ്പം ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടില് ഇട വിട്ട് ഇട വിട്ട് റാഗി രാത്രി നമുക്ക് റാഗി ദോശ ഉണ്ടാക്കും പക്ഷേ അത് എല്ലാവരും കഴിക്കുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യമാകുമ്പം അത് വേണ്ടാന്ന് നല്ലതല്ലാന്ന് പറയില്ല എല്ലാവരും നമ്മളെല്ലാവരും കഴിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ആരോഗ്യത്തിന് നല്ലതായിട്ട് കുറച്ച് കുറഞ്ഞു കിട്ടും ചോറിനേക്കാളും എന്ത് കൊണ്ടും ചോറിനേക്കാളും ഷുഗറുള്ളവർക്കെല്ലാം നല്ലത് തന്നെയാണ് അതുകൊണ്ട് ഞാന് അതുണ്ടാക്കലുണ്ട് അങ്ങനെ പിന്നെ ഉലുവയും അരിയും ഇട്ടിട്ട് നമ്മള് ദോശ ഉണ്ടാക്കുന്നുണ്ട് അതങ്ങനെ ഇപ്പം അരച്ച് വെച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒഴിച്ച് കൊടുക്കും അത് നല്ല വെളുത്തുള്ളി ഇട്ടിട്ട് ചമ്മന്തി ആക്കി കൊടുക്കലുണ്ട് അപ്പോൾ അതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മള് മാറി മാറ്റി ചെയ്യുന്നത് കൊണ്ടങ്ങനെ അത് ആ ടേസ്റ്റ് എല്ലാവർക്കും അത് അപ്പം പിന്നെ ചിലത് അതും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻറ്റടുത്ത് ചോദിക്കും പിന്നെ ചിലത് യു ട്യൂബിൽ നിന്നൊക്കെ ചെയ്യും ആ ചിലപ്പോൾ എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞ് തരും പിന്നെ ചിലപ്പോൾ എൻറ്റമ്മ പറഞ്ഞ് തരും ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ആകുമെന്ന് അത്യാവശ്യമെല്ലാം എനിക്ക് അമ്മയാണ് കൂടുതലായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാന് യൂ ട്യൂബ് ഇതെല്ലാം നോക്കി ചെയ്യും പിന്നെ ചിലത് മക്കള് നോക്കിയിട്ട് പറയും അമ്മ ദേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായി അമ്മ അമ്മ ഉണ്ടാക്കുവോ അങ്ങനെ ചോദിക്കും അപ്പം ഞാനത് എന്നാൽ പെട്ടന്ന് ഞാൻ നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് അവർക്ക് ഉണ്ടക്കിക്കൊടുക്കും ഇല്ലെങ്കിൽ വൈകുന്നേരം അവര് സ്കൂള് വിട്ട് വന്നിട്ട് അവർ പറയും അമ്മ എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കി താ അമ്മ വൈകുന്നേരം ആകുമ്പം അപ്പം ഞാൻ ചെറിയ സ്നാക്സ് ടൈപ്പ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറ് വെച്ചിട്ട് അരിപ്പൊടി വെച്ചിട്ട് അങ്ങനെല്ലാം വെച്ചിട്ട് എന്തെല്ലാം ഉണ്ടാക്കിക്കൊടുക്കും പിന്നെ ഈ നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മളെ നൂൽപുട്ടുണ്ടാക്കും നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് ഉടച്ചിട്ട് അതിനെ കുറച്ച് അരിപ്പൊടി എല്ലാം ഇട്ടിട്ട് കുഴച്ചിട്ട് നൂൽപുട്ടുണ്ടാക്കി കൊടുക്കും നേന്ത്രപ്പഴം എടുത്തിട്ട് അങ്ങനെ വേറെ വേറെ എന്ത് റെസിപ്പി ഇതാക്കുന്നോ അതനുസരിച്ച് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കും വേറെ വേറെ എല്ലാ വെറൈറ്റീയും പഴംപൊരി പിന്നെ അതെല്ലാം നമ്മൾ സാധാരണ ഇതാക്കുന്ന സാധനമായത് കൊണ്ട് അപ്പം കുക്ക് ചെയ്യാൻ എനിക്കൊരു മടി ഇല്ലാത്തത് കൊണ്ടും കുക്കിങ്ങ് എനിക്കൊരു ബോറിങ്ങല്ല കുക്കിങ്ങ് എനിക്കൊരു ഹോബിയാണ് എനിക്കിഷ്ടമാണ് കുക്ക് ചെയ്യാൻ ഇപ്പം അടുക്കളയില് കറി കഴിഞ്ഞാൽ അയ്യോ അത്ചെയ്യരുതേന്ന് അതില്ല ഞാൻ ആ പണി നല്ല ആസ്വദിച്ചിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് കാരണം നമ്മള് സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്ത് കൊടുക്കുമ്പം അവര് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ടല്ലോ അതും നമുക്കൊരു സന്തോഷം തന്നെ പിന്നെ ഞാൻ അധികം ചെയ്തെന്ന് പറഞ്ഞാല് എൻ്റെ കൃഷിസ്ഥലത്തുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഞാനെല്ലാം നാച്ചുറലായി ചെയ്യാൻ ഇഷ്ടപെടുന്ന ആളാണ് അത് പാക്കറ്റ് ഫുഡ് പൗഡറായിട്ട് മറ്റേ ഇത് മുളക് പൊടി മല്ലിപ്പൊടി ഏത് അത് ഒരു സാമ്പാറ് പൊടിയാണെങ്കിലും ഞാൻ പാക്കറ്റായിട്ട് ഉപയോഗിക്കില്ല ഞാൻ എല്ലാം സ്വന്തം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ അക്കാര്യത്തില് നാച്ചുറല് എനിക്ക് കുറച്ച് കൃഷി സ്ഥലമുണ്ട് അതിൽ ഞാൻ നല്ലത് പോലെ ഓർഗാനിക്കായിട്ട് തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ന്ന്ണ്ട്അങ്ങനെ എല്ലാമായിട്ട് എനിക്ക് അതാണ് ഇഷ്ടം നമ്മള് ടൗണില് വാങ്ങിക്കഴിക്കുന്നത് എനിക്ക് തീരെ താൽപ്പര്യിമില്ല അപ്പം അതുകൊണ്ട് ഞാൻ വീട്ടില് അമ്മ അമ്മയുണ്ട് എന്റെ ഒന്നിച്ചു അമ്മക്ക് വെറൈറ്റി വെറൈറ്റി പാചകം ചെയ്യാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് എനിക്ക് ഈ പാചകത്തിൻ്റെ ഇത് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് വീട്ടില് മാത്രമല്ല ഞാൻ ആൾക്കാരുടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്തും ചോദിക്കും എന്തെങ്കിലും വെറൈറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അവരോടത് ചോദിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇതിന് എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസെന്തല്ലാം ഇതില് നമ്മള് എന്തെല്ലാം ഇടണം അതെല്ലാം ഞാന് വ്യക്തമായി ചോദിക്കും അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് പാചകം ചെയ്യല് അവിടെ ഞാൻ അടുപ്പത്തിരുന്നാല് ഒന്നര രണ്ട് മണിക്കൂറ് നമ്മള് പാചകമൊക്കെ കഴിഞ്ഞു പാചകം പണ്ടത്തെപ്പോലെ കഷ്ടപ്പാടൊന്നും ഇല്ല ഇന്ന് പാചകം ചെയ്യാനായിട്ട് പണ്ടങ്ങനെ ആട്ടു കല്ലില് ആട്ടിയിട്ടെല്ലാം എടുത്തിട്ടാണ് പാചകം ചെയ്യുന്നത് ഇന്നാണെങ്കില് മിക്സീല് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ മിക്സിയിലായി പിന്നെ ഗ്യാ പണ്ട് അടുപ്പത്ത് കത്തിക്കുന്നു പക്ഷേ ഇന്നങ്ങനെ അല്ല ഗ്യാസിൽ തന്നെ കത്തിക്കുന്നു പക്ഷേ ഞാൻ ചിലപ്പോൾ അടുപ്പത്ത് കത്തിക്കണ്ട കാര്യമുണ്ടെങ്കിൽ ഞാൻ അടുപ്പത്ത് തന്നെ കത്തിച്ച് ഇതാക്കും ഞാൻ ചോറെല്ലാം എന്ന് വച്ചാല് അടുപ്പത്ത് തന്നെ വെക്കലാണ് കാരണം അതാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ ചോറെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കും അന്ന് ഇന്ന് പണ്ടത്തേപ്പോലെ പാചകം ചെയ്യാനിന്നൊരു ബുദ്ധിമുട്ടില്ല പാചകം അതുകൊണ്ട് പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്